ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ഡാറ്റ ആണ് വൈഫൈ അല്ല മൊബൈൽ ഡാറ്റ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് എന്ത് കൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഇവിടെ വൈഫൈ ഇല്ലാത്തത് കൊണ്ടും കാരണം അതു തന്നെ മൊബൈൽ ഡാറ്റ ആണ് നമുക്ക് ഇവിടെ ലാഭം മൊബൈൽ ഡാറ്റ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് വൺ ജി ബി വൺ പോയിൻറ് ഫൈവ് ജി ബി നെറ്റ് ആണ് എനിക്ക് ഒരു ദിവസം ഉള്ളത് നെറ്റ് വർക്കിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ റേഞ്ചിൻ്റെ ഇവിടെ സ്ഥലത്തിൻ്റെ റേഞ്ചിൻ്റെതായ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എന്താ പറയുക നെറ്റ് വർക്ക് എന്താ പറയുക ഓരോ സമയത്തും അതിൻ്റെ ഓരോ ഇതാണ് അത് നമ്മളിപ്പോൾ വൺ പോയിൻറ് ഫൈവ് ജി ബി ആണെങ്കിലും ഒരു ദിവസം ഡെയിലി ഇപ്പോൾ വൺ പോയിൻറ് ഫൈവ് ജി ബി ആണെങ്കിലും ഡാറ്റാൻ്റെ സ്പീഡ് ഇടയ്ക്ക് കുറയാറുണ്ട് ഇടയ്ക്ക് കൂടാറുണ്ട് അത് ഓരോ റേഞ്ചിൻ്റെ ഇതുപോലെ ഇരിക്കും അത് അതുപോലെ തന്നെ ഓരോ നെറ്റ് വർക്ക് പ്രശ്നം വന്ന് ആണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയുക എന്തെങ്കിലും ഇപ്പം നമ്മള് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതിലൂടെ അതിനെ പിന്നെ എന്താ പറയുക ചില സമയത്തൊക്കെ ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ ചില സ്ഥലത്ത് ഹൈ സ്പീഡ് ഡാറ്റ ഒക്കെ ആയിരിക്കും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവും വേറെ കുഴപ്പവും ഒന്നുമില്ല